ആർട്ട് എക്ബിഷന് അതുപോലെത്തന്നെ പല എക്സ്പോയിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ആർട്ട് എക്ബിഷന് വെച്ചു നോക്കുകയാണെങ്കിൽ പരമ്പരാഗതമായി കലാ വസ്തുക്കൾ പ്രേക്ഷകരെ കണ്ട് മുട്ടുന്നൊരു ഇടം ഇടമെന്നു വേണമെങ്കിൽ പറയാം കാരണം ഇങ്ങനെയാണ് പ്രദർശനം ചെയ്യുകയാണ് പല ആളുകൾ സ്വന്തമായി ഉ ഉണ്ടാക്കിയ കലകളൊക്കെ പ്രദർശിപ്പിക്കുക അതാണ് ആർട്ട് എക്സിബിഷന് കാര്യമായിട്ട് കാണാറുള്ളത് അതുപോലെത്തന്നെ എക്സ്പോ എക്സ്പോയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ഈ അടുത്ത കാലത്തു നിന്ന് ഏറ്റവും വലിയൊരു എക്സ്പോയായിരുന്നു ദുബായ് എക്സ്പോ പല ഭാഗികമായി എനിക്കത് കാണാനും ആസ്വദിക്കാനും പറ്റി പല രാജ്യങ്ങളെന്നു വരുന്ന പല സംഗതികളും ഇതിൽ പ്രദർശിപ്പിക്കും പിന്നെ ലോകത്തിലെല്ലാ രാജ്യങ്ങളും പങ്കെടുക്കുന്ന എക്ബിഷനിൽ കല അതേപോലെ ശാസ്ത്രം വാണിജ്യം എന്നീ പല മേഖലെ നേട്ടങ്ങൾ ആയിരിക്കും പ്രദർശിപ്പിക്കുക ഇനിയും അത് അതുപോലെത്തന്നെ എക്സ്പോ പല കാര്യങ്ങളും മനുഷ്യർക്ക് ഇതിൽ നിന്ന് ഞമ്മക്ക് അറിയാനും നേടാനും സാധിക്കും ആറ് മാസം ദൈർഘ്യമുള്ള വേൾഡ് എക്സ്പോ ആണ് ഞാനിപ്പോൾ പറഞ്ഞത് രണ്ടായിരത്തിരുപതിൽ നടന്നത് അത് എല്ലാ അവരെ എല്ലാ ഇടവിട്ട് എല്ലാ വർഷങ്ങളിലും ഇതു നടന്നു കൊണ്ടിരിക്കുന്നതാണ് അതുപോലെത്തന്നെ വാട്ടർ എക്സ്പോയെന്നു പറയുന്നത് ഇപ്പോൾ നമ്മളുടെ നാട്ടിലൊക്കെ പല സമയങ്ങളിലും ഇതു നടന്ന് കൊണ്ടിക്കുന്നതാണ് പല കാര്യങ്ങളും ഞമ്മൾ പ്രദർശിപ്പിക്കുക അതിനെ കുറിച്ച് അറിയുക മനസ്സിലാക്കുക ഇതൊക്കെ ഞമ്മക്ക് കാണുമ്പോൾ തന്നെ ചെയ്യാൻ കയ്യും പല എക്സ്പോയിൽ നമ്മൾ പങ്കെടുക്കും പല കാണാൻ കഴിയാത്ത സാധനങ്ങളും ഞമ്മക്കിതുന്ന് കാണാൻ കഴിയും അറിയാനും കഴിയും